ഞങ്ങളുടെ പ്രദേശത്ത് കുറേ ബേങ്കുകളുണ്ട് കാനറാ ബേങ്ക് എസ് ബി ഐ പി ഡി സി പി എസ് സി കേരള ബേങ്ക് അങ്ങനെ കുറേ ബേങ്കുകളുണ്ട് ഞാൻ എനിക്ക് അറിയുന്നതിൽ വെച്ചിട്ട് വായ്പ ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുന്നത് എനിക്ക് ഞാൻ അധികം അങ്ങനെ വായ്പ ഇൻഷുറൻസൊന്നും എടുക്കാറില്ല പക്ഷെ എൻ്റെ അറിവിൽ അത് നല്ലത് എന്ന് പറയുന്നത് എസ് ബി ഐ ആയിരിക്കും എന്താ പറഞ്ഞാൽ അത് ഗവൺമെന്റ് അപ്പ്രൂവ്ഡ് ആയതുകൊണ്ട് അതിൽ നിന്ന് അതിലൂടെ കിട്ടുന്ന വായ്പകളും ഇൻഷുറൻസുകളും കുറച്ചും കൂടി സെക്യൂരിറ്റിയും സെക്യൂരിറ്റിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എസ് ബി ഐ കാനറാ ബേങ്ക് എന്ന് പോലെ അവിടെ പോലുള്ള ബേങ്കുകളിൽ നിന്നും എടുക്കുന്ന വായ്പ ഇൻഷുറൻസും എല്ലാം സുരക്ഷിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു